ഞാനെന്നു പറയുന്ന വ്യക്തി കൂടുതൽ ഗ്രാമത്തിലെ ആരെന്നാൽ ഒരു കോളനിയില് താമസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്കീ ക്ലബ്ബിൽ പബ്ബിൽ പോകുക പരിപാടിയൊന്നും എനിക്ക് അറിയത്തില്ല അതുപോലെതന്നെ ഈ മദ്യപിക്കുക ഞാന് മദ്യപിക്കാറുണ്ട് ന്യൂ യറിനായിട്ടും അതുപോലെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഇടക്ക് ഒരു ബിയറൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അല്ലാതെ നമ്മളീ വെള്ളമടിച്ചിട്ട് നമ്മളീ പുറത്ത് അവിടെയും ഇവിടെയൊക്കെ പോയി കിടക്കുന്നത് അതിനോടൊന്നും എനിക്ക് താത്പര്യമില്ല അതുകൊണ്ട് ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചതു കൊണ്ടായിരിക്കാം എനിക്ക് അതിനോടൊക്കെ ഒരു വിദ്വേഷമുള്ളതെന്ന് എനിക്കു തോന്നുന്നു പിന്നെന്താണെന്നു വെച്ചാൽ നമ്മുടെ ഈ മദ്യം എന്താ പറയുക നമ്മളെ പിശാച് ആക്കി മാറ്റും അതേപോലെ നമ്മുടെ സ്വഭാവമൊക്കെ മാറി അതിനോടൊന്നും എനിക്ക് താത്പര്യമില്ല അത് ഉൾ ഗ്രാമത്തിൽ ജനിച്ചതു കൊണ്ടായിരിക്കാം പിന്നെയെന്താണെന്നു വെച്ചാൽ ഈ ഞങ്ങൾ ഒരു ദിവസം ഒരു ഒരു യാത്ര ബംഗ്ലൂര് വരെ യാത്ര പോയപ്പോൾ അവിടെ ഞങ്ങളാദ്യം പോയതൊരു പബ്ബിലേക്കാണ് ക്ലബിലെക്കാണ് അവിടെ ഇതുപോലെ കുറേ മതാമമാർ പോലെ കുറേ ആള്ക്കാർ ഉണ്ടായിരുന്നു അവരൊക്കെ നല്ലവണ്ണം ഡ്രിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു മദ്യപിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കതൊക്കെ കണ്ടപ്പോൾ എന്തോ എനിക്കത്ര ശരിയായിട്ട് തോന്നിയില്ല എന്താ അതുപോലെതന്നെ ഡ്രിങ്കിങ്ങോന്നും എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല എന്നാലും ഞാന് കഴിക്കാറുണ്ട് എന്നാലും അതിരുവിടാറൊന്നുമില്ല അതൊരു സാധാരണ ഒരു നാട്ടിന്പുറത്ത് ജനിച്ചതു കൊണ്ടായിരിക്കാം എന്നു തോന്നുന്നു എനിക്കതിനോട് വലിയ താത്പര്യം ഇല്ലാത്തത് പിന്നെ നമ്മളീ ഇവിടെത്തന്നെ നമ്മുടെ ഞങ്ങളുടെ കോളനി കോളനിയിൽ താമസിക്കുന്നത് ഈ കോളനിയില് തന്നെ കുറേ ആള്ക്കാർ മദ്യപിക്കാറുണ്ട് എന്നാലും അവർ പുറത്തേക്ക് അവരെക്കൊണ്ട് ശല്യമൊന്നുമില്ല ഞങ്ങളുടെ ദേഹത്തേക്കൊന്നും ശല്യപ്പെടുത്തിയാൽ ഞങ്ങളുടെ മനസ്സിനെ ശല്യപ്പെടുത്തേ ഞങ്ങളുടെ നിശബ്ദത കളയുകയോ ഒന്നും അവർ ചെയ്യുന്നില്ല ഇത് ഇങ്ങനെ ഒരു ദിനം ഉള്ളതിനെ എനിക്ക് ഒരു ഇത് തോന്നുന്നത് അതുപോലെതന്നെ നാട്ടും പുറത്ത് ജനിച്ചതു കൊണ്ടായിരിക്കാം എനിക്ക് ഇതൊന്നും തോന്നാത്തത് എന്നാലും എനിക്ക് ക്ലബിനോടും പബ്ബിനോടൊന്നും വലിയ താത്പര്യം ഇല്ല